ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് ഫോൺ എന്തോ ആണെന്നു പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം ഇന്ന് ഒരു എന്താ പറയുന്നത് അവർ കമ്പ്യൂട്ടറ് യുഗത്തിലാണ് ഇന്ന് കുട്ടികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങൾക്കു മുമ്പ് ഞങ്ങളൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്ന കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറേതര ക്ലാസുകളോ ഇൻ്റർനെറ്റിൻ്റെതായ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും ഒരു ധാരണയില്ലാത്ത സാഹചര്യമായിരുന്നു ഇന്ന് പാർട്ടി വിഷയമാണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് പാർട്ടി വിഷയമാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യത മേഖലകൾ തന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ് ഇൻ്റർനെറ്റ് യുഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യുഗം എന്നുള്ളത് ഇതിനെ ബേസിക്ക് ആയിട്ട് അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അത്യന്താപേഷിതമായ ഒരു മേഖല തന്നെയാണ് ഇത് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് വളരെ ഒരു നല്ല അവസ്ഥയിലേക്ക് കുട്ടികളെ മാറ്റപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് ഉള്ളത് വാസ്ഥവമാണ് ഏതു മാർഗ്ഗങ്ങളും അല്ലെങ്കിൽ ഏത് കാര്യങ്ങളും നന്മയ്ക്കായിട്ട് ഉപകരിച്ചാൽ അതിന് ഇപ്പോൾ ഒരു വലിയ ഒരു മാറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ കാരണമായിട്ട് തീരും എന്നാൽ അതിനെ സംബന്ധിച്ച് ദോഷവശങ്ങളിലേക്ക് കടന്നുപോകുമ്പോൾ അതിൻറ്റേതായ ഭവിഷ്യത്തുകളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ മേഖല ഉപയോഗിച്ചുകൊണ്ട് ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ കുഞ്ഞുങ്ങളിലേക്ക് പഠിത്തങ്ങൾ നിലയ്ക്കപ്പെട്ട പോലെ നിലയ്ക്കപ്പെട്ടപ്പോഴ് ഫോണിലൂടെ പ്രത്യേകിച്ച് ഫോണിലൂടെ ടി വീ ലൂടെ എന്നതിനേക്കാളുപരി ഫോണിലൂടെ കാണുവാനും കേൾക്കാനും ആയിട്ട് കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് വളരെ നല്ല കാര്യമായിരുന്നു പക്ഷേ എന്നാൽ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ശരിയായ മേഖലകൾ സ്കൂളിലേക്ക് അവർ കടന്നു വന്ന് കഴിഞ്ഞപ്പോഴ് അതായത് ഈ ഒരു കാലഘട്ടം ഈ കോവിഡ് ദുഷ്കരമായ കാലഘട്ടം കഴിഞ്ഞ് സ്കൂളുമായിട്ട് അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോഴും ശരിക്കും വാസ്തവത്തിൽ പറഞ്ഞാൽ എനിക്ക് രണ്ട് മക്കളുള്ള വ്യക്തിയാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എൻ്റെ കാഴ്ച്ചപ്പാടിൽ പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ കാലഘട്ടങ്ങളിലും ഫോണിനെക്കുറിച്ച് എന്ത് എന്തൊക്കെ അറിയാൻ പറ്റുമോ അതിനെക്കുറിച്ചൊക്കെ അവർക്ക് അവർ അറിഞ്ഞു കഴിഞ്ഞു ഇനിയും അവരിൽനിന്ന് ഫോൺ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴും അവരുടെ മനസ്സിലെ ടെൻഡൻസീ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്കൂള് വിട്ട് അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലെത്തി കഴിഞ്ഞാൽ അവർ ആദ്യം കൈകളിൽ എടുക്കുന്നത് മൊബൈൽ ഫോൺ ആണ് അപ്പം തുടർ വിദ്യാഭ്യാസ മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന മേഖലകൾ ഫോണിലൂടെയൊക്കെ കടന്നുവരുന്നത് നല്ലതായിരിക്കും പിന്നെ ഇന്ന് വിദ്യാഭ്യാസ രംഗങ്ങൾ തന്നെ ഒട്ടനവധി മേഖലകൾ ഫോണിലൂടെ പല ആപ്പുകൾ വഴിയായിട്ട് ഉള്ള ഒരു ബിസിനസ് ആയിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് അപ്പം അതൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴ് കുഞ്ഞുങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെയെക്കെ ക്രിയേറ്റിവിറ്റി ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ് അത് അവരുടെ ഉന്നമതിക്ക് അല്ലെങ്കിൽ ഉന്നത രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ട് ഉയരുവാനൊക്കെ സാധിക്കുന്ന രീതിയിൽ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ഇനിയും എത്ര കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞുകൊടുത്താലും അവരെ സംബന്ധിച്ച് അവരൊരു ഫോണിൽ നിന്ന് നേടിയിരിക്കുന്ന ഒരു ആസ്വാദനം അവരത് സ്വന്തമാക്കി വെച്ചിരിക്കുക തന്നെയാണ് അപ്പം ഇതിൽ കൂടുതൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കുവാൻ പൊതു വിദ്യാഭ്യാസ മേഖലകളിൽ അത് കടന്നുവരുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അതുപോലെ അതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചും മാറ്റാൻ തക്ക രീതിയിൽ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇതിനോട് കൂടി കടന്നുവരുന്നത് നല്ലതാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ